ഹലോ ആ ഹലോ മാം ആ എനിക്കേ എൻ്റെ ഒരു ഫ്രണ്ടിന് അൾസറിൻ്റ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് കുറച്ച് സിവിയർ ആണ് ഇപ്പോൾ അപ്പം ആളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കുറച്ച് മോശമാണ് അപ്പം ഇവിട ഇപ്പം എവിടെ ആണ് ഏതാണ് നല്ലൊരു കേരളത്തിൽ ഏതാണ് നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും പിന്നെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് മൈത്ര അല്ലേ

ആ ആ ആ ആ കാലിക്കറ്റ് ആണല്ലേ വരുന്നത് എക്സ്പെൻസീവ് ആണോ ഓക്കെ ഓക്കെ ഓക്കെ കാലിക്കറ്റ് ആണല്ലേ വരുന്നത് അപ്പം മാം എന്നാൽ എനിക്ക് ഒന്ന് ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാൻ പറ്റുമോ എനിക്ക് ഡീ ഡോക്ടറിന്റെ ഡീറ്റെയിൽസും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും വേണം ഓക്കെ ഓക്കെ ഓക്കെ മാം എന്നാൽ എന്നെ ഒന്ന് വിളിക്ക് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുവോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യൂ